ഹലോ അതേ ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓ വെരി ഗുഡ് വെരി ഗുഡ് ആ ആ

ഓ അത് ശരി വെരി ഗുഡ് വെൽക്കം

ആ കേരളം പതിനാല് ജില്ലകളുണ്ടെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത് വൈൽഡ് ലൈഫിൻ്റെ സാന്നിധ്യം തന്നെ ഉള്ളത് കേരളത്തിൽ തിരുവനന്തപുരം ഇടുക്കി വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് അതിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നാച്ചുറൽ എല്ലാം നാച്ചൊറൽ വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ ഉള്ളത് പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് ഈ പറഞ്ഞത് പോലെ ഏ ഇടുക്കി കണ്ണൂർ വയനാട് ജില്ലകളൊക്കെയാണ് ആ അതിനകത്ത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ടായിട്ടുള്ള ചില വളരേ വ്യത്യസ്തതയോ തോന്നുന്ന നാച്ചൊറൽ വൈൽഡ് ലൈഫ് സാഞ്ച്വറികളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നമ്മളെ ഗവൺമെൻ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുണ്ട് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി അത് അതെ കണ്ണൂർ കണ്ണൂർ അതൊരു അവിടെ ട്രൈബൽ ആൾക്കാരാണ് കൂടുതലുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആന ആക്രമിച്ചു ദേശവാസികൾ മരണപ്പെട്ട ഒരു വന്യമൃഗ സങ്കേത കേന്ദ്രമാണ് ഈ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് കേരളത്തിലെ ആനകളുടെ സാന്നിധ്യവും ഏറെ ഉള്ള ഒരു പ്രദേശമാണ് ഇത് അപ്പം അവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ടൂറിസ്റ്റിനെ അലൗഡ് ആണ് അവരുടെ ഗവൺമെൻ്റിൻ്റെ ഗൈഡുകൾ കൂടെ വരും നമ്മളോടൊപ്പം തന്നെ ആ പ്രത്യേക വാഹനത്തിലൊക്കെ പോകാൻ പറ്റത്തുള്ളു അപ്പം ഫോറസ്റ്റ്കാർ അവിടെയാണേ ഒരു നമ്മുടെ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു പ്ലാസ്റ്റിക്ക് കവറ് പോലും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല ഫുഡ്ഡൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടു വരുന്നതിന് ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ വളർത്തു മൃഗങ്ങളെയൊക്കെ വളരെ അധികം സ്നേഹിക്കുന്ന പാഷനേറ്റായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥരാണ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് വളരെ ആസ്വാദന നിലവാരമുള്ളതാണ് അതാണ് എനിക്ക് ഇപ്പം തേക്കടിയുണ്ട് തേക്കടി ഒത്തിരി വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് തേക്കടി ആനകളെയൊക്കെ കാണാമെന്നുള്ളതാണ് ടൈഗറാണേ അതേ അത് ഭയങ്കരമാണ് അതേ അതേ അതേ അതേ അതേ അതെ പിന്നെ പിന്നെ ഈ ആറളത്ത് അതേ അത് നല്ലതാണ് നല്ലതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ആറളത്ത് പോവുമ്പോഴേ അതിൻ്റെ അടുത്ത് ഈ മാനന്തവാടി അടുത്ത മാനന്തവാടി അടുത്ത ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നാഗർഹോൾട വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റേയും കർണാടകത്തിൻ്റെയും കൂടെ അതിർത്തിയാണ് തിരുനെല്ലി ചെന്നിട്ട് പോകേണ്ട സ്ഥലമാണ് അവിടെയും പ്രത്യേക ഫോറസ്റ്റിൻ്റെ വാഹനത്തിലാണ് നമ്മൾ നടന്നാണ് കാണാൻ പറ്റുന്നത് അതെ അതെ അതെ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ പറശ്ശിനിക്കടവെന്ന് പറയുന്ന ഒരു നാച്ചൊറൽ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട് പിന്നെ അവിടെ ഒരു ആ അതേ അതുതന്നെ അതു തന്നെ അതു തന്നെ അവിടെ ഇപ്പോൾ ഒരു ആ അവിടെ ഒരു ആയുർവേദ കോളേജൊക്കെ ഉണ്ട് ഇപ്പം അവിടെ ആയുർവേദ കോളേജൊക്കെ ഉണ്ട് പിന്നേ ഉണ്ട് അവിടെ ഒരുപാട് നാച്ചൊറൽ വാട്ടർ ഫാൾസുണ്ട് കണ്ണൂർ ജില്ലയിൽ അവിടെയൊക്കെ വൈൽഡ് ലൈഫുകളൊക്കെ കാണാം ഇവിടെ ഏത് സമയത്തക്കെ കാണാം കാണാം നല്ല കാര്യം നല്ല കാര്യം പിന്നെ പിന്നേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്യാപ്പിറ്റലിൽ തന്നേ ഒരു സൂ ഉണ്ട് തലസ്ഥാനത്തിൻ്റെ ഹാട്ട് കോട്ട്രിത്തന്നെ അതുപോലെ തൃശ്ശൂരുമുണ്ട് തൃശ്ശൂർ ഒരുപാട് വൈൽഡ് ലൈഫ് അവിടെ ഉണ്ട് അന്തേവാസികളായിട്ട് അതെ അതെ അതേ അതേ അതേ ഓക്കേ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഓക്കേ ഓക്കേ ചിലവഴിക്കണം ഓക്കെ എഞ്ചോയ് ശരി സന്തോഷം സന്തോഷം ഓക്കെ താങ്ക് യു ഓക്കേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്